അ സാറെ ഞാനേ പിന്നെ ഈ മെയ് മുപ്പത്തൊന്നാം തിയതി റിട്ടയറാക സർവീസ് ഞാനെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അതിൻ്റെയൊരു മാനസികമായിട്ടുള്ളൊരു പിരിമുറക്കത്തിൽ ഇപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്കളാണ് ഒന്നാമത് ചെയ്യുന്ന വർക്കിലൊന്നും കോൺസൺട്രേഷൻ കിട്ടുന്നില്ല ഉറക്കം ക്ലിയറാകുന്നില്ല അപ്പം അങ്ങനൊരു എന്താണ് മനിക്ക് സംഭവിച്ചോണ്ടിരിക്കേന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല

പക്ഷേ എനിക്ക് അങ്ങനെ എന്ത് കൊണ്ടാണ് ഇത് സംഭവിച്ചേന്ന് മനസ്സിലാവുന്നില്ല അത് എനിക്ക് ഫൈനാൻഷ്യലി പ്രശ്ങ്ങളൊന്നുവില്ല എനിക്ക് വേണ്ട അത്യാവശ്യം പിന്നെ ബാ ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളാണെങ്കിലും മൂന്നാള് മൂന്ന് പെങ്കുട്ടികളാണുള്ളത് അവർ മൂന്നാളും ഓസ്ട്രേലിയയിലാണ് വർക്ക് ചെയ്തോണ്ടിരിക്കിന്നെ അത്യാവശ്യം നല്ല രീതീലാണവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് അതുകൊണ്ട് പിന്നെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഇതെന്ത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഇതാകുന്നേന്നുള്ളത് പെട്ടന്ന് മനസ്സിലാകുന്നില്ല ഇല്ല ചിന്തിച്ചിരിക്കാന ഞാൻ റിട്ടയർമെൻറ്റായി കഴിഞ്ഞാൽ പിറ്റെ ദിവസം തന്നെ എനിക്ക് വേണമെങ്കിൽ ഓസ്ട്രേലിയയിലേട്ട് പോകാം അവിടെ മൂന്ന് മക്കളും അവർ നല്ല രീതിയിലാണ് അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്താണ് ഇപ്പം എൻ എന്തൊക്കെയാണ് എനിക്ക് സംഭവിക്കുന്നേന്നുള്ളത് മാനസ്സികമായിട്ട് മാനസ്സികമായിട്ട് ഒരു ഉന്നെ ഇത് കിട്ടുന്നില്ല ഉറക്കം വരണില്ല ഇങ്ങനൊക്കെയുള്ളൊരു സംഭവത്തിലാണ് നിൽക്കുന്നത്

അത് ശരി ആ ആ ആ അവൂ അതിപ്പോൾ ഓക്കെയാണ് സാറെ ഓക്കേ